ഹലോ നമ്മൾ എൻ പി എസ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അത് കിട്ടുന്നില്ലല്ലോ ആ അല്ല എല്ലാ പാൻസും വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ ആ ഓക്കെ ഏതാണ് ഏത് ഏതാണ് അല്ല ഏതാണ് ആ ഏത് ആപ്പ് കയറ്റാനാണ് പറഞ്ഞത് ആ ഓക്കെ ആ അത് ചെയ്യണമല്ലേ ആ ആ അത് ചെയ്തിട്ട് ഓ അതിലേക്കാണോ ആക്കേണ്ടത് ആ ആ അതെ പെൻഷൻ്റെയാണ് ആ അങ്ങനെ ചെയ്താൽ മതിയല്ലേ എന്താണ് എന്താണ് ആ ആ ചെയ്യാം ചെയ്യാം ലോഗിൻ ചെയ്യാൻ നോ ക്കുകയാണ് നമ്മൾ അത് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ആ അതെ ആ ഓക്കെ ആ ഡൗൺലോഡ് ചെയ്യുക ആ ചെയ്യാനല്ലേ ആ ഓക്കെ ഓക്കെ എന്താണ് ആ വിവരങ്ങളല്ലേ ആ നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ ആ എല്ലാം ആ അതന്നെ തന്നു തന്നു ആ അതെ അതെ എന്തോ അതാ ആ ഓക്കെ ആ എന്തായാലും ചെയ്യാം ആ ചെയ്യാം ചെയ്യാം ആ ശരി ഓക്കെ താങ്ക് യു ആ ഓക്കെ ആ ചെയ്തോളാം ഓക്കെ